പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഒൻപത് പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് രണ്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്